ഞങ്ങൾ ശേഖരിച്ച ആദ്യത്തേ സ്റ്റാമ്പ്കളൊക്കെ കുറച്ച് സ്റ്റാമ്പ്കളൊക്കെ ഈ കൊച്ച് കുട്ടികൾ കൊച്ച് മക്കളൊക്കെ വരുമ്പോൾ അവരത് കാണുമ്പം അവർ അത് എടുത്തോണ്ട് പോവും എടുത്തോണ്ട് പോയി അവർ കൊണ്ട് പോയി ഒരു പേപ്പർലിങ്ങനെ ഒട്ടിച്ച് വെക്കും പേപ്പറ് ഒരു ചതുരത്തിൽ ഉള്ളൊരു പേപ്പറെട്ത്തിട്ട് അതേൽ ഇങ്ങനെ എല്ലാം നിരത്തി നിരത്തി ഒട്ടിച്ച് ഒട്ടിച്ച് ഒട്ടിച്ച് സ്റ്റാമ്പ്കൾ വെയ്ക്കും കിട്ടുന്ന സ്റ്റാമ്പ്കളെല്ലാം കൊണ്ട് പോയി അവിടെ ഒട്ടിച്ചെക്കും അവരുടെ സ്കൂളീന്ന് സ്റ്റാമ്പ് ശേഖരണത്തേപ്പറ്റി സാർമാർ പറയുമ്പം അത് കേട്ടിട്ട് ഞങ്ങളോട് വന്ന് ചോദിക്കും അപ്പം ഞങ്ങൾ ഇങ്ങനെ എടുത്ത് കൊടുക്കും അവർ കൊണ്ട് പോയത് സൂക്ഷിച്ച് വെക്കും എന്നിട്ടവർ സ്കൂളിക്കൊണ്ട കാണിക്കുവായിരിക്കും അതിനൊക്കെ വേണ്ടിയിട്ടായിരിക്കും അവർ കൊണ്ടുപോവുക നമ്മൾ ഞങ്ങളുടെ കയ്യിൽ ഇപ്പം ഒന്നുമില്ല എല്ലാ ആ പിള്ളേരെ എടുത്തോണ്ട് കൊച്ചു മക്കൾ എടുത്തോണ്ട് പോകുന്നുണ്ട് എന്നും സൂക്ഷിച്ച് ഞങ്ങളുടെ വീടുകൾക്കോടെ ഇല്ല അതെല്ലാം പിള്ളേർ എടുത്തോണ്ട് പോയി സ്റ്റാ അവർ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് അങ്ങനെ പിന്നെ അവരുടെ കയ്യിൽ ഇപ്പം ഇരിപ്പുണ്ടോ ഇല്ല്യോന്നൊന്നു അറിഞ്ഞൂട എന്നാലും സുക്ഷിച്ച് അവര്ന്ന് അവർ കൊണ്ടുപോവാ ചെയ്യുന്നത് സാധാരണ എല്ലാം നാണയങ്ങളാണേലും പഴയ ഈ പഴയ ഉപകരണങ്ങളും നമ്മുടെ അടുക്കളയിൽ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ ഒക്കെ ആണേലും തവികൾ ചിരട്ടകളൊണ്ടാ പണ്ട് ഉപയോഗിച്ചോണ്ടിരുന്ന ചിരട്ടകളൊക്കെ ചിരട്ടകൾ ഉണ്ടാക്കുന്ന ചിരട്ട കൊണ്ട് ഉണ്ടാക്കുന്ന തവികൾ അങ്ങനുള്ള സാധനങ്ങൾ ഒക്കെ നമ്മൾ വീടുകളിൽ വെച്ചാൽ ഇത് പിള്ളേർ കാണുമ്പം ആ ഇതിങ്ങനെ ഉപയോഗിക്കുന്ന സാധനങ്ങൾ ആയിരുന്നു എന്നക്കെ പറഞ്ഞു കൊടുക്കും അവർ അത് അതൊന്നും അങ്ങനെ സാധാരണ എടുത്തോണ്ട് പോകാറില്ല എന്നാലും നമ്മൾ ഇത് സൂക്ഷിച്ച് വെക്കാറുണ്ട് സൂക്ഷിച്ച് വെച്ച് പിള്ളേരൊക്കെ കാണിച്ച് കൊടുക്കാൻ വേണ്ടീട്ട് സൂക്ഷിച്ച് വെക്കാറുണ്ട് പിന്നെ ഒരു പ്രത്യേക സൈസ്സ് കല്ലുകളൊക്കൊണ്ടല്ലോ നല്ല നെറോള്ള ചില്ല് പോലിരിക്ക്ന്ന കല്ല്കളൊക്കെ ഒണ്ട് അങ്ങനെ കല്ല്കളളൊക്കെ കാണുമ്പ അതക്കെ എട്ത്ത് വെച്ചിട്ട് പിള്ളേരേ കാണിച്ചൂന്ന് പണ്ടക്കെ ഇത് ഈ ഇന്ന് ആണെങ്കിൽ അരോവൊക്കെ ഉപയോഗിച്ചാണ് മുറിച്ച് ഉണ്ടാക്കുന്നത് പക്ഷേ പണ്ടൊക്കെ ഈ കല്ലുകൾ ഉപയോഗിച്ച് അത് ഒല്ലിലിട്ട് ഇടിച്ച് പൊടിച്ചിട്ട് അത് പൊടിയാക്കി ആ പൊടി ഉപയോഗിച്ചാണ് ആയുധങ്ങളൊക്കെ തേച്ച് ഉപയോഗിച്ചോണ്ടിരുന്നത് അപ്പം ആ കല്ല് അതൊക്കെ കുട്ടികൾക്ക് ഞങ്ങൾ പറഞ്ഞ് കൊടുക്കാറുണ്ട് ഇങ്ങനെയാണ് തേച്ചോണ്ടിരുന്നത് ഇപ്പം എല്ലാവരും ഇപ്പം മൂർച്ച കൂട്ടുന്ന മൂർച്ച കൂട്ടുന്ന സാധനങ്ങളെല്ല കല്ല് പ്രത്യേക കല്ലുകൾ ഒക്കെയുണ്ട് പിന്നെ പ്രത്യേക അരങ്ങളക്കെ ഉണ്ട് അരങ്ങളൊക്കെ ഉയോഗിച്ചാണ് മൂർത്ത് മൂർച്ച കൂട്ടുന്നത് പിന്നെ ഇപ്പം ഇലക്ട്രിക്ക് സാധനങ്ങൾ കൊണ്ടൊക്കെ മൂർച്ച കൂട്ടാറുണ്ട് അങ്ങനെയൊക്കെ ആ നല്ല കല്ലുകളൊക്കെ ഉണ്ടായിരുന്നു വജ്രക്കൽ അതുപോലെ തന്നെ കരിങ്കല്ല് വെള്ളാരങ്കല്ല് വെള്ളാരങ്കല്ലുകളാണ് സൂക്ഷിച്ച് വെച്ചിട്ട് അത് ഇടിച്ച് പൊടിച്ച് പൊടിയാക്കി ആയുധങ്ങളൊക്കെ തേച്ച് ഉപയോഗിച്ചോണ്ടിരുന്നത് കുട്ടികളൊക്കെ ആയിരിക്കുമ്പോൾ അവർ അത് അതുപോലെ തന്നെ ചെയ്യും പിന്നെ കൊച്ചു കുട്ടികളൊക്കെ ഇപ്പം കൊച്ചുമക്കളൊക്കെ ആയിക്കഴിയുമ്പം അവർ അത് എടുത്തോണ്ട് പോയി സൂക്ഷിച്ച് വെക്കും എന്നിട്ടത് ആ ഇത് പഴയ കാലത്തൊണ്ട ഇത് ഇന്ന ഇന്ന ഉപയോഗത്തിന് കൊള്ളാന്നാ നമ്മൾ പറഞ്ഞ് കൊടുക്കുമ്പം അവർ അത് കൊണ്ട് സൂക്ഷിച്ചൊക്കെ വെക്കുന്നത് കണ്ടിട്ടുണ്ട് പിന്നെ ഇത് വജ്രക്കല്ല്കൾ എന്ന് പറഞ്ഞ ഒരു കല്ലൊക്കെ ഉണ്ടല്ലോ ചിലപ്പം ഇങ്ങനെ ഈ കണ്ടങ്ങളൊക്കെ കുഴിച്ച് കഴിയുമ്പം കിട്ടാറുണ്ട് അപ്പം അത് ആ ഇതിന് നല്ല തിളക്കവാണല്ലോ ഇത് സൂക്ഷിച്ച് വെച്ചാൽ കൊണ്ട് കൊടുത്താൽ കാശ് കിട്ടോ എന്നൊക്കെ പിള്ളേർ ഇതൊക്കെ കാണുമ്പം ചോദിക്കും ഇപ്പം നമ്മൾ അത് വിലയില്ലാത്ത സാധനമായിരിക്കും ചിലപ്പം പക്ഷേ അതൊക്കെ പിള്ളേർ സൂക്ഷിച്ച് കൊണ്ടോയി വെക്കുന്നത് കണ്ടിട്ടുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മുല്യം എന്ന് പറഞ്ഞാൽ കൂടുതൽ പിള്ളേർക്ക് ഇതിനെ പറ്റി ഒക്കെ അറിയുവാനും അവരുടെ ബുദ്ധി വികാസിക്കാനും അവർ എല്ലാ ഈ ഇതൊക്കെ ഇന്ന അവർ പണ്ട് കാലത്തേ കാര്യങ്ങളൊക്കെ പറഞ്ഞ് കൊടുക്കുമ്പം അവരൊക്കെ അതൊക്കെ മനസ്സിലാക്കി സൂക്ഷിച്ച് വെക്കുവാനും അതുപോലെ തന്നെ അതൊക്കെ ചെയ്യാനും അവർക്ക് ഇൻട്രസ്റ്റ് തോന്നാനും ഒക്കെ ഇടയായിട്ടുണ്ട്